ഹലോ ഞാൻ വിളിക്കുന്നത് വെള്ളവങ്ങാട് നിന്നാണ് വിളിക്കുന്നത് ഞാൻ ഒരു സിലിണ്ടർ എച്ച് പി ഗ്യാസിൻ്റെ സിലിണ്ടർ ബുക്ക് ചെയ്തിരുന്നു ജോലിയെ തിരക്ക് കാരണത്താൽ ബുക്കിംഗ് ആയിക്കണോ ഇല്ലയോ ഒന്നും നോക്കാൻ സാധിച്ചില്ല ദയവ് ചെയ്ത് ആ ബുക്ക് ആയിട്ടുണ്ടോന്ന് പറഞ്ഞ് തരാൻ സാധിക്കുമോ ആ ഐ ഡി എന്നുള്ളത് ഞങ്ങളുടെ ബുക്കിങ്ങിൻ്റെ ഐ ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എ ബി സി ഏഴ് എട്ട് ഒൻപത് എന്നുള്ളതാണ് അപ്പം അത് ബുക്ക് ചെയ്തിരുന്നു ബുക്കിങ് ആയിക്കാണോ ഇല്ലയോന്ന് അറിയാൻ വിളിക്കുന്നതാണ് അത് ആധാറിൻ്റെ ലാസ്റ്റ് അക്കം എന്നുള്ളത് നാല് അക്കം ആ അഞ്ച് ആറ് ഏഴ് എട്ട് എന്നതാണ് ലാസ്റ്റ് അക്കം ചില ജോലിയുടെ തിരക്കായിരുന്നു ഇവിടെ സിലിണ്ടർ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബുക്ക് ചെയ്തായിരുന്നു ഫോൺ വഴി തന്നെയാണ് ബുക്ക് ചെയ്തത് അപ്പോൾ ബുക്കിംഗ് ശരിയായിക്കാണുമോ ഇല്ലയോ റെഡി ആയിട്ടുണ്ടോ എന്നുള്ളതിന് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയായിരുന്നു അത് വിളിച്ചത് ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഞങ്ങൾക്ക് നോക്കിയാൽ പറഞ്ഞ് തരാൻ പറ്റില്ലേ ബുക്കിംഗ് ഐ ഡി നേരത്തെ പറഞ്ഞിരുന്നു അത് കറക് ആ കറക്റ്റാണ് അത് തന്നെയാണ് ബുക്കിംഗ് ഐ ഡി ഡേറ്റ് അല്ലെങ്കിൽ എപ്പോഴാണ് അല്ലെങ്കിൽ ഏത് സമയത്താണ് വരാം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിന് ക്യാഷ് അപ്പം തന്നാലും മതിയാവില്ലേ ഓക്കെ ഓക്കെ ഓക്കെ ആ ബുക്കിംഗ് ഐ ഡി അത് കറക്റ്റാണ് അതെ അതെ ആ ഓക്കെ താങ്ക് യൂ